കളിക്കാൻ ഇഷ്ടമുള്ള കായിക ഇനം ഏത് എന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ് എന്നാണ് എനിക്ക് നൽകാനുള്ള ഉത്തരം എന്തുകൊണ്ടാണ് ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ കൂടുതൽ താല്പര്യമുള്ള കൂടുതൽ ഇഷ്ടമുള്ള ഗെയിം ക്രിക്കറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു കാര്യവും ഇല്ല ചെറുപ്പക്കാലത്ത് അതായത് സ്കൂളിൽ കോളേജുകൾ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ ക്രിക്കറ്റിനോടുള്ള താല്പര്യം ഉണ്ടായിരുന്നു ക്രിക്കറ്റ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഇന്ത്യ വേൾഡ് കപ്പ് നേടിയത് മുതലാണ് ക്രിക്കറ്റ് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും ക്രിക്കറ്റിനെക്കുറിച്ച് അറിയാനും ആ കളിയുടെ നിയമവശങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ തുടങ്ങുന്നത് കാരണം അതാ ടി വി അതിനുശേഷം ടി വി പ്രചാരത്തിൽ വന്നതോടുകൂടി കൂടുതലായി ക്രിക്കറ്റ് കളി കാണാനായിട്ട് സാധിച്ചു അങ്ങനെയാണ് ക്രിക്കറ്റ് ആ കാലഘട്ടത്തിലെ ക്രിക്കറ്റ് കളി തുടങ്ങുന്നത് ഇന്ന് ഇപ്പോൾ ക്രിക്കറ്റ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കായിക ഇനമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഫുട്ബോള് പോലെത്തന്നെ ക്രിക്കറ്റ് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന നമ്മുടെ രാജ്യത്തിന് പേരും പ്രശസ്തിയും നേടിത്തരുന്ന ഒന്നാണ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് ലോകപ്രശസ്തരായ നിരവധി ക്രിക്കറ്റ് താരങ്ങളെ സംഭാവന ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് കപിൽ ദേവിനെ പോലെ സുനിൽ ഗവാസ്കറിനെ പോലെ സച്ചിൻ ടെണ്ടുൽക്കറിനെ പോലെ ഇപ്പോൾ വിരാട് കോഹ്ലിയെ പോലെയുള്ള പ്രതിഭാധനരായ ലോകപ്രശസ്തരായ നേട്ടങ്ങൾ ഒരുപാട് സ്വന്തമാക്കിയ ക്രിക്കറ്റ് താര കളിക്കാർ നമ്മുടെ രാജ്യത്ത് ഉണ്ട് തീർച്ചയായിട്ടും അതും അവരോടുള്ള ആരാധന അവരോടുള്ള താല്പര്യം ഇതൊക്കെ പുതിയ തലമുറയെ ക്രിക്കറ്റിലേക്ക് ആകർഷിക്കുന്നു എന്നുള്ളതിന് കാരണങ്ങളാണ് അല്ലാതെ അതാണ് ക്രിക്കറ്റ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നു